കൃഷിയെപ്പറ്റി കൂടുതൽ അറിയുന്ന ആളുകൾ അത് കർഷകരാണ് അപ്പോൾ പുതിയ കൃഷിയിടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില തരിശുഭൂമികളിൽ എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്യാൻ സാധിച്ചുകൊള്ളണമെന്നില്ല ചിലപ്പോൾ ചില സാധനങ്ങൾ എവിടെയും കൃഷി ചെയ്യാനും സാധിക്കും നമ്മുടെ കൃഷിഭൂമി നമ്മൾ പാട്ടത്തിന് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ചില ആളുകൾ ചില സാധനങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ചില പ്രത്യേക ധാന്യങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നീട് ആ ഭൂമിയിൽ മറ്റൊന്നും കൃഷി ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അത് തരിശുഭൂമിയായി പോകും അതിന് ഉദാഹരണമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുണ്ടായിരുന്ന കാലത്ത് അവർ കോട്ടനും അങ്ങനെത്തെ മറ്റ് സാധനങ്ങളൊക്കെ കൃഷി ചെയ്ത് ഇന്ത്യയിലെ പല കൃഷിഭൂമികളെയും നശിപ്പിച്ചുവിടുന്നു പിന്നീടവിടെ ഒന്നും മുളക്കാത്ത രീതിയിലേക്ക് വന്നു അപ്പം നമ്മളൊരു കൃഷിഭൂമി വാങ്ങുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് അതിൻ്റെ മണ്ണ് അവിടെ വെള്ളം അടുത്ത് കിട്ടുന്ന സ്ഥലമാണോ എങ്ങനെയാണ് അവിടെ മുമ്പ് കൃഷി ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ കൃഷി നടക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നീട് കർഷകർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉള്ളതാണ് സ്ഥിരമായി കൃഷി ചെയ്യുന്ന പാഠങ്ങൾ അവിടെ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ മറ്റ് ഗ്രൗണ്ട് പോലെ ആളുകൾ കളിച്ച് നല്ല ഉറച്ച ഭൂമിയിലേക്ക് പോയി നെൽകൃഷി പോലുള്ള കൃഷികളൊക്കെ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ചിലപ്പോൾ ഇത് കാര്യമായി വിജയം സാധിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് കൃഷിഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ നാമാദ്യമായിട്ട് കർഷകരോട് അന്വേഷിച്ചുകൊണ്ട് എടുക്കുക പിന്നീട് അവിടെ മുമ്പ് നടന്ന കൃഷി എന്തൊക്കെയായിരുന്നു ഇങ്ങനെപ്പറ്റി ഒന്ന് പഠിക്കുക അതുപോലെ അവിടെ അടുത്തെവിടെയാണ് വെള്ളം കിട്ടുന്നത് വെള്ളം കിട്ടുന്ന ഭൂമിയാണ് അടുത്ത് കെനാലുണ്ടോ കുളമുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഇതാണ് ഒരു കൃഷിഭൂമി നാം വാങ്ങുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക